മലയാള ഭാഷ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും നമ്മളൊത്തിരി കാര്യങ്ങൾ ചെയ്യണം ഇനി വരും തലമുറയിൽ ഇപ്പോൾ എല്ലാം ഇംഗ്ലീഷാണ് കൈകാര്യം ചെയ്യുന്നതു കൊണ്ട് എല്ലാവരും മലയാളത്തെപ്പോലെ പുറകിലോട്ടു വെച്ചിരിക്കയാണ് അത് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളെ ആയാലും ആദ്യ പാഠമെന്നുള്ള രീതിയിൽ പത്രങ്ങൾ വായിക്കാൻ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം ബുക്കുകൾ വായിക്കാനും കൊച്ചുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സമയം കണ്ടെത്താൻ പ് കൊടുക്കണം അങ്ങനെ വായിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് മലയാള ഭാഷയെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴത്തേ ഫ ഫോണിൻ്റെ ഉപയോഗമൊക്കെ കൂടുതൽ കാരണം കുഞ്ഞുങ്ങൾ കേൾക്കുന്നതു മാത്രമേ ഉള്ളു അത് കൊണ്ടിവർക്ക് മലയാള ഭാഷ ചൊവ്വേ നേരെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സം പറ്റുന്നില്ല ഓരോ അക്ഷരങ്ങൾ എങ്ങനെ എഴുതണമെന്നുള്ള കാര്യങ്ങളൊന്നും ഈ കേൾക്കുന്നതു കൊണ്ടു മാത്രം പറ്റത്തില്ല അത് എഴുതിയോ വായിച്ചോ മാത്രമേ നമുക്ക് മലയാള ഭാഷയെ പഠിക്കാനായിട്ടു സാധിക്കത്തുള്ളൂ അതിൻ്റെ ഏറ്റവും ഉപകാരമെന്നു പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വായിക്കുക കുഞ്ഞുങ്ങൾ മുതലേ നമ്മൾ വായനാ ശീലം വളർത്തണം വായന ശീലം വളർത്തണം അവരെക്കൊണ്ട് കുഞ്ഞി കുഞ്ഞി കാര്യങ്ങൾ എഴുതി പഠിപ്പിക്കണം ചെറിയ ചെറിയ കഥകളെഴുതാൻ പഠിപ്പിക്കണം അങ്ങനെയൊക്കെ സെ അങ്ങനെയൊക്കെ ചെയ്തതിനു സേ അങ്ങനെയൊക്കെ ചെയ്തതെങ്കിൽ മാത്രമേ നമുക്ക് മലയാള ഭാഷയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും മ് നല്ല നല്ല കവിതകൾ പഠിക്കാനും നമ്മുടെ ചങ്ങമ്പുഴയുടെയും നമ്മുടെ വള്ളത്തോളിൻ്റെയൊക്കെ കുറേ കൃതികൾ കവിതകൾ പഠിക്കാനും അത് എങ്ങനെ ചൊല്ലണമെന്നും ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മലയാള ഭാഷയെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കയുള്ളു മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ വളരെ പാ ബുദ്ധിമുട്ടുള്ളൊരു ഇതാണ് ഇത് ആദ്യമേ കുഞ്ഞുങ്ങൾക്കത് കിട്ടിയില്ലായെന്നുണ്ടെങ്കിൽ അതു വളരേ ബുദ്ധിമുട്ടാണ് അതിനനുസരിച്ച് അക്ഷരങ്ങൾ കൈകാര്യം ചെയ്യുക ചില്ലക്ഷരങ്ങളും ചില്ലും കോമയും കുത്തും ഒക്കെ വരേണ്ട സമയം കറക്റ്റ് രീതിയിൽ പഠിക്കണമെങ്കിൽ അതു കുഞ്ഞുങ്ങൾ അവർ എഴുതിയും വായിച്ചും ചെയ്തും മാത്രമേ അതിനെ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളു അതിനു വേണ്ടി കുഞ്ഞുങ്ങൾക്കവസരം കൊടുക്കുക എല്ലാവർക്കും ഒരു ലൈബ്രറിയിൽ ഒരു ഒരാഴ്ചയിൽ ഒരു പുസ്തകമെങ്കിലും നമ്മൾ വായിച്ചില്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ടു ബുക്കെങ്കിലും വായിക്കണം എന്നൊരു നിർബന്ധം നമ്മൾ വെക്കുക ദിവസം വീട്ടിൽ പത്രം വരുത്തുകയും ആ പത്രം വായിച്ചുവെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതു പഠിച്ചു എന്ന് നമുക്ക് ഉറപ്പു വരുത്താൻ പറ്റത്തുള്ളൂ എല്ലാ വീട്ടിലും പത്രം വരുത്തുകയും അതിനു നേരമില്ല എങ്കിൽ ഒരു പേജെങ്കിലും ഒരു ദിവസം കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കുകയും മുതിർന്നവരായാലും വായിക്കയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മലയാള ഭാഷയെ നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റത്തുള്ളൂ അതുപോലെ മലയാള സ്കൂ മലയാളം സംസാരിക്കണം കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നില്ല സ്കൂളുകളിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ സംസാരിക്കാനോ അവർക്ക് ഒരവസരം കിട്ടുന്നില്ല അതിനു നമ്മൾ വീട്ടിൽ വരുമ്പോഴെങ്കിലും നമ്മൾ കുടുംബമായിട്ട് എല്ലാവരോടും നിന്ന് കാര്യങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും ഒരു പാട്ടു പാടാനും ഒരു കവിത ചൊല്ലാനും ഒക്കെ നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്കവസരം ഒരുക്കി കൊടുക്കയും അവരെക്കൊണ്ട് ചെറുകഥകൾ എഴുതിപ്പിക്കുകയും കുഞ്ഞു കുഞ്ഞു കവിതകൾ എഴുതിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ വരും തലമുറ നല്ല രീതിയിൽ മലയാളം കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളു ഇത് ഇങ്ങനെ ഇനി വരുന്ന തലമുറയ്ക്ക് ഇത് അധികമായി ചെയ്തതെങ്കിൽ മാത്രമേ പ്രയോജനം ചെയ്യത്തുള്ളൂ ഈ കഴിഞ്ഞ തലമുറയിൽ അത്രയും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചിരുന്നില്ല അവരെയൊക്കെ വായിക്കുമായിരുന്നു ഫോണിൻ്റെ ഉപയോഗം കുറയുന്നതു കൊണ്ട് അവരൊത്തിരി വായിക്കുമായിരുന്നു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഫോണിൻ്റെ ഉപയോഗം കൂടുന്നതു കൊണ്ട് ഇവർ ഹാൻഡ് ബുക്കുകൾ കൈകാര്യം ചെയ്യുന്നില്ല അതുകൊണ്ട് അതു നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചാൽ നമുക്ക് മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കാനും നിലനിർത്താനും സാധിക്കും